മാധ്യമങ്ങൾ എന്നത് ജീവികൾ തമ്മിലുള്ള ആശയ വിനിമയത്തിന് ഉപയോഗിക്കുന്ന അത് ഭാഷയാവാം അല്ലെങ്കിൽ പത്രങ്ങളാവാം അല്ലെങ്കിൽ ചില ലിപികളാവാം ഏത് രീതിയിലായാലും ജീവികൾ തമ്മിലുള്ള ആശയ വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു ഒരു ഭാഷ അതാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഒഴിവുകാല മാധ്യമങ്ങളെ പത്രങ്ങൾ ഉണ്ടായിരുന്നു ടി വി ഉണ്ടായിരുന്നു ഇപ്പം ടെലിവിഷനിലൂടെ വാർത്തകൾ ഇന്ന ഒരു ഒരു പ്രത്യേക സമയത്ത് മാത്രം ലഭിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ നമുക്ക് അപ്പ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്ന മാധ്യമങ്ങളാണ് ഇന്ന് നിലവിലുള്ളത് ഇപ്പം വെബ്സൈറ്റിൽ എന്തെങ്കിലും അടിച്ച് കൊടുത്താൽ നമുക്ക് ഏത് ആവശ്യം എന്താണോ ആവശ്യം അതിനെ കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒന്നാണ് പുതിയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന നവമാധ്യമങ്ങളിലൂടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പഴയ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം പഴയ മാധ്യമങ്ങൾ പത്രങ്ങൾ പത്രങ്ങളിലൂടെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഇന്നത്തേക്ക് അറിയാൻ സാധിച്ചിരുന്നത് എല്ലാവർക്കുമൊന്നും മാധ്യമങ്ങൾ ലഭിച്ചിരുന്നുമില്ല ഒരുപാട് ആളുകൾ ആ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ആ വാർത്തകൾ അന്നത്തെ കാര്യങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ പോലും അറിയാതെ പോയ ഒരുപാട് ആളുകൾ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഭൂരിപക്ഷം നൂറിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും നവമാധ്യമങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും കൃത്യതയോടെയും അറിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവിടെ ഏത് ഒരുതരത്തിലും ഉള്ള ആ ഒരു കൈകടത്തലോ അല്ലെങ്കിൽ അനാവശ്യമായ ഒരു കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കുകയില്ല അത്രത്തോളം ഉയർന്ന് നിൽക്കുന്നതാണ് നവമാധ്യമങ്ങളെന്ന് പറയുന്നത് പഴയകാല മാധ്യമങ്ങളെ അപേക്ഷിച്ച് നവമാധ്യമങ്ങൾക്കാണ് ഇന്ന് കൂടുതലും പ്രാധാന്യം അതിലൂടെ ചിന്തിക്കുവാനും ചിന്താശേഷി ഉയർത്തിക്കൊണ്ടു വരുവാനും അതിലൂടെ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് നടപ്പിലാക്കുവാനും സാധിക്കുന്നുണ്ട് നവമാധ്യമം നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് പഴയകാല മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കുന്നത് ഈ പുതിയ നവമാധ്യമങ്ങളിലൂടെ തന്നെയാണ് വെബ്സൈറ്റുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്ട്സാപ്പിലൂടെയും ഒക്കെ നമുക്ക് ധാരാളം കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു ധാരാളം കാര്യങ്ങൾ നമുക്ക് തിരിച്ചും അറ അറിയാനും അല്ലെങ്കിൽ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യാനുമൊക്കെ സാധിക്കുന്നതും നവമാധ്യമങ്ങളിലൂടെ തന്നെയാണ് പത്രങ്ങൾക്കും ഒക്കെ ഇന്നും വളരെയധികം പങ്കുണ്ടെങ്കിൽ പോലും പഴയകാലത്ത് പത്രങ്ങളിലൂടെ നമുക്ക് വളരെ വിരളമായ വാർത്തകളും കാര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മാത്രമാണ് അറിയാൻ സാധിച്ചിരുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വെബ്സൈറ്റുകളിലൊക്കെ ഒരു ജോലിയുടെ കാര്യങ്ങൾ ആയാലും സാങ്കേതികവിദ്യയിലായാലും പലതരത്തിലുള്ള ജോലികൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനും അതുപോലെ ജോലി സാധ്യതകൾ തേടുന്നവർക്കാണെങ്കിൽ പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്തെടുക്കുന്ന ഇടത്ത് ലഭിക്കുന്നതാണ് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇന്നത്തെ നവമാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം എല്ലാവർക്കും വളരെയധികം പ്രയോജനമുള്ളതാണ്